ഞങ്ങളുടെ പ്രദേശത്തെ ഗതാഗത സൗകര്യം എന്നു പറയുമ്പോൾ വിദ്യാഭ്യാസത്തെ വളരെ അധികം പിന്തുണക്കുന്നുണ്ട് എന്നാൽ ബാധിക്കുന്നുണ്ട് എന്നു വച്ചാൽ ഇപ്പം കെ എസ് ആർ ടി സി പോലെയുള്ള ബസുകൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം കെ എസ് ആർ ടി സി ബസ്സ് ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം സാധാരണ ബസ് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് എസ്റ്റി പോലെയുള്ള എസ്റ്റിയൊക്കെ മേടിച്ചു കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ ഗവൺമെൻ്റ് ഗവൺമെൻ്റ് ബസ്സ് മാത്രം കെ എസ് ആർ ടി സി പോലെയുള്ള ബസ്സുകൾ ഫുൾ ടിക്കറ്റ് മാത്രം മേടിച്ചു പോകുന്ന സ്കൂളുകളെ കുട്ടികളെ കൊണ്ടുപോകുന്ന രീതിയാണ് ഉണ്ടാകുന്നത് ചില ബസുകൾ ചില കെ എസ് ആർ ടി സി ബസുകൾ ആണെങ്കിൽ കുട്ടികൾ കൈകാണിച്ചാൽ പോലും നിർത്താത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ ആണെങ്കിൽ എസ്ടി മേടിക്കുന്നുണ്ട് എന്നാലും പണ്ടുണ്ടായിരുന്നത് പോലുള്ള ഒരു അത്ര കുറവാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചു കൊണ്ടിരുന്നപ്പോഴൊക്കെ ആണെങ്കിൽ രണ്ട് കിലോമീറ്റർ അകലെയുള്ള സ്കൂളില് വീട്ടിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ മൂന്ന് രൂപയും അഞ്ച് രൂപയുമൊക്കെ ആയിരുന്നു മേടിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ

പതിമൂന്ന് രൂപയിൽ നിന്നും മൂന്നു രൂപ കുറച്ചു പത്ത് രൂപ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം പല ബസ്സുകളിലും ഉണ്ടാകുന്നത് എന്നാൽ കെ എസ് ആർ ടി സി ബസാണെങ്കിൽ പതിമൂന്നിലും കൂടുതലും മേടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് നോക്കുന്നത് ഇപ്പം ഓരോ കുട്ടി ഇപ്പം പതിമൂന്ന് രൂപയാണ് ഒരു കുട്ടിക്ക് ഫുൾ ടിക്കറ്റ് എന്നു പറയുന്നെങ്കിൽ ആ കുട്ടി പതിമൂന്ന് രൂപ കൃത്യം പതിമൂന്ന് രൂപ ആയിട്ട് തന്നെ കൊടുത്തില്ലെങ്കിൽ ഇരുപത് രൂപയായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഏഴ് രൂപ കൊടുക്കാൻ ആ കണ്ടക്ടർ ബാധ്യസ്ഥനാണ് എന്നാലും ആ വ്യക്തി അതിന് തയ്യാറാകുന്നില്ല കറക്റ്റ് പതിമൂന്ന് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ആ കുട്ടിയെ ബസ്സിൽ കയറ്റി സ്കൂളിലേക് വിടുകയും ചെയ്യുകയുള്ളൂ അല്ല ഇപ്പം ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഏഴ് രൂപ തരാനായിട്ട് അയാൾക്ക് മനസ്സ് വരികയില്ല ഇരുപത് രൂപ എന്നല്ല അമ്പത് രൂപ കൊടുത്തെങ്കിൽ പോലും മൂന്ന് രൂപയും കൂടെ ഉണ്ടോ എന്ന് അവർ എടുത്ത് ചോദിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പം ഗതാഗത പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നത് പിന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് സഞ്ചാരത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള വഴികളും അതും വൃത്തിയാക്കേണ്ടതായ ഒരു വളരെ വലിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു വഴിയിലൂടെയൊക്കെ വണ്ടി ഓടിക്കുക എന്നു പറയുന്നത് വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മറികടന്നു കൊണ്ടാണ് ഓരോ ഡ്രൈവറും വണ്ടി ഓടിക്കുന്നത് പിന്നെ വഴിയിലൂടെ വരുന്ന ചപ്പും ചവറും അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഓരോ ഗതാഗതത്തെയും തടസപ്പെടുത്തുന്നുണ്ട് ഇപ്പം വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് കുണ്ടും കുഴിയും വേസ്റ്റൊന്നും ഇല്ലാത്ത ഒരു വഴിയിലൂടെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു നിരപ്പായ ഒരു വഴിയിലൂടെ ഓടിക്കണം എന്നുള്ളത് ഓരോ ഡ്രൈവറിൻ്റെയും ആഗ്രഹമാണ് പിന്നെ വിദ്യാഭ്യാസത്തെ ഗതാഗതസൗകര്യം മെച്ചപ്പെടത്തുന്നുണ്ട് എന്നാൽ മെച്ചപ്പെടുത്താൻ പറ്റുന്നതുമല്ല എന്നൊരു സാഹചര്യമുണ്ടെന്നാണ് പറഞ്ഞു വന്നത് ഇപ്പോൾ ഇപ്പോൾ തലമുറക്കാണെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും സ്വന്തമായി വണ്ടി ഉള്ളവരാണ് അങ്ങനെ വണ്ടിയുള്ളവരും സ്വന്തമായിട്ട് സ്കൂളുകകളിൽ അല്ല കോളേജുകളിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ലായിരിക്കും സ്കൂളുകളിൽ അതിന് അനുവദനീയമല്ല എന്നാൽ കോളേജുകളിൽ വരുന്ന പഠിക്കുന്ന കുട്ടികൾ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ സ്വന്തം വണ്ടിയെ തന്നെയായിരിക്കും യാത്ര ചെയ്തു വരുന്നത് അല്ലാതെ സ്കൂളുകളിൽ പഠിക്കുന്ന മറ്റു കുട്ടികൾക്ക് അങ്ങനെ സ്വന്തമായി വണ്ടി ഉണ്ടെങ്കിലും അങ്ങനെ കൊണ്ടുവരാനുള്ള അനുവാദമില്ല അപ്പോൾ ആ കുട്ടികൾക്ക് ബസ്സിൽ വരിക തന്നെയാണ് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള കാര്യം എന്നു പറയുന്നത് എന്നാൽ ഈ ബസ്സിൽ വരുന്ന ഈ കുട്ടികൾക്കും പത്ത് രൂവ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടി വരുക എന്ന് പറയുന്നും അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസിൽ കയറ്റാതിരിക്കുക എന്നു പറയുന്നതും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് പിന്നെ ഓരോ ഇപ്പം സമയാസമയത്ത് ബസ് ഉണ്ടായിരിക്കുക ആണെങ്കിൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു അര മണിക്കൂറുകൾ ഇടവിട്ട് കഴിഞ്ഞു ബസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വളരെ ബുദ്ധി പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും അപ്പോൾ സ്കൂള് വിട്ട് കഴിഞ്ഞു നാല് മണിക്ക് ഒരു ബസുണ്ടെങ്കിൽ ആ ബസ്സ് പോയതിന് ശേഷം തുടർന്ന് തന്നെ നാലരയ്ക്കും ഒരു ബസ്സ് ഉണ്ടാവുക ഉണ്ടാവുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും കാരണം എന്താണെന്നു വച്ചാൽ കുട്ടികളെ അല്ലാതെ മറ്റു മുതിർന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഈ ബസ്സുകൾ യാത്ര ചെയ്യുന്നവരാണ് അങ്ങനെ ഇവരും യാത്ര ചെയ്യുമ്പോഴും ഈ കുട്ടികളും കൂടി കയറുമ്പോൾ ബസ്സിന് വലിയ ഒരു തിക്കും തിരക്കും ഉണ്ട് അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെ തിക്കും തിരക്കും ഒക്കെ അനുഭവപ്പെട്ടു കൊണ്ട് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ പല അപകടങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പം ഒരു ഒരു ബസ്സിൽ പരിചിയിൽ കൂടുതൽ ആളുകളൊക്കെ നിൽക്കുകയാണെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ ആണേലും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിന്ന് താഴെ പോയി കുട്ടികൾക്കും പല അപകടങ്ങളും പരിക്കുകളും പറ്റുന്ന സാഹചര്യക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പ ഈ സാഹചര്യങ്ങളേക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുടർന്ന് അടുത്തടുത്ത സമയത്ത് പല ബസ്സുകളും ഉണ്ടാവുകയാണെങ്കിൽ പല കുട്ടികൾക്കും മറ്റ് മുതിർന്നവർക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും പിന്നെ സ്വന്തമായിട്ടും വണ്ടിയുള്ള ആളുകളാണെങ്കില് സ്വന്തമായിട്ടും വണ്ടിയുള്ള ആളുകളാണെങ്കിൽ അവർ കടെ ശ്രദ്ധയോടും കരുതലോടും കൂടി കൂടിയിട്ട് അവരുടെ വണ്ടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം

വളരെ മേലോട്ട് കൂടിയിട്ട് വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകേണ്ടി വരും പിന്നെ ഇപ്പം ഒരു സ്കൂളിൽ ഒരു ക്ലാസ് തുട് ത് ഒൻപത് മണിക്കാണെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് എത്തുന്ന ഒരു സമയത്ത് ബസ്സ് ക്രമീകരിക്കുക എന്നുള്ള വളരെ നല്ല ഒരു കാര്യമായിരിക്കും ഇനി ആ ബസ്സ് ഇല്ലാണ്ട് വരികയോ അല്ലെങ്കിൽ ലേറ്റായി വരികയൊക്കെ ചെയ്യുകനോള്ള സാഹചര്യംമുണ്ടെങ്കിൽ ആ ബസ്സിന് പകരം മറ്റൊരു ബസ്സ് ഏർപ്പെടുത്തേണ്ടതും അത്യാവശ്യമായിരിക്കും ഇപ്പോൾ ഒമ്പത് മണിക്ക് ക്ലാസ്ൽ കയറേണ്ട കൂട്ടി ഒമ്പത് ഒമ്പതരയോക്കുമ്പോഴേക്കും ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു അദ്യാപകനും ചോദിക്കും എന്താണ് ലേറ്റായതെന്ന് അപ്പോൾ കുട്ടി പറയും ബസ്സ് താമസിച്ചാണ് വന്നത് അല്ലെങ്കിൽ ബസ്സിലായിരുന്നുഎന്നൊക്കെ പറയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നുകിൽ ആയി ഒരു ബസ് അതിൻ്റെ കൃത്യസമയം പാലിക്കാൻ പാലിക്കണം എങ്കിലെ കുട്ടികൾക്ക് സമയത്ത് തന്നെ സ്കൂളിൽ എത്തുവാനായിട്ട് സാധിക്കൂള്ളു മിക്ക സ്കൂളുകൾ മിക്ക സ്കൂളുകളാണെങ്കിൽ സ്കൂൾ ബസെന്ന് പറഞ്ഞ ഒരു സൗകര്യം ഇല്ല പല കുട്ടികളും സാധാരണ ലൈൻ ബസ്സ് കെ എസ് ആർ ടി സി ബസ്സ് അങ്ങനെയുള്ള ബസ്സുകളൊക്കെയാണ് യാത്ര ചെയ്തു പോരുന്നത് അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മറികടക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ഇപ്പോൾ ഒരു ദിവസം ഒരു ബസ്സില്ല എങ്കിൽ ആ ബസ്സിന് പകരം മറ്റൊരു ബസ്സ് ഇറക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടങ്ങളൊക്കെ നേരിൽ കണ്ടുകൊണ്ട് വേണം ഓരോ ഡ്രൈവർമാർ കണ്ടക്ടർമാരും ഒക്കെ കുട്ടികളെയും കൊണ്ടു യാത്ര ചെയ്തു പോകുവാൻ പിന്നെ സ്കൂളുകൾ സ്കൂൾ ബസ് എന്നുള്ള സൗകര്യം കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും അങ്ങനെ ചില സ്കൂളുകളില് സ്കൂൾ ബസ് എന്നെരു സംവി ധനമുണ്ട് എങ്കിലും ഒരു മാസം ആയിരം അതിന് മോളിലൊക്കെയാണ് ഒരു സ്കൂളിൽ നിന്നും ബസ്സിൻ്റെ ഫീസ് ആയിട്ട് ഓരോ സ്കൂളും കളകട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പൈസ മേടിക്കുന്നത് കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കണം പല കുട്ടികളും ലൈൻ ബസ് കെ എസ് ആർ ടി സി ബസ് അങ്ങനെയുള്ള ബസ്സുകളിലൊക്കെ കയറി പോകുന്നത് ഇതൊക്കെ വച്ചു ലാഭം നോക്കുമ്പോൾ ലൈൻ ബസ്സിന് പോകുന്നതാണ് ലാഭമെന്ന് അവർക്ക് മനസ്സിലാവും അങ്ങനെ അവർ ലൈൻ ബസ് മതി എന്ന് തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഒരു സ്കൂളിന് പല ഭാഗത്തേക്കുമായിട്ട് ഓരോ ബസെങ്കിലും ക്രമപ്പെടുത്തുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും